നമ്മളൊരു ട്രിപ്പ് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമ്മടെ സാഹചര്യവും ഒക്കെയൊന്ന് കണക്കിലാക്കിക്കൊണ്ട് അതിൻ്റെ ടിക്കറ്റിൻ്റെ നിരക്ക് പിന്നെ അതെ പോലെ തന്നെ നമുക്കും നമ്മുടെ കുടുംബത്തുള്ള എല്ലാവരും കൂടെ പോകുമ്പം എത്ര രൂപ അതിൻറ്റകത്ത് ചിലവാകുമെന്നും നമുക്ക് എത്രത്തോളം പിന്നെ അതിൻറ്റകത്ത് നിന്ന് നമുക്ക് പോയി തിരിച്ചുവരാനായിട്ട് എത്രയാണ് നമ്മുടെ കോസ്റ്റെന്നൊക്കയൊന്ന് ഒന്ന് ചർച്ച ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടൊന്ന് പറയുമായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ സാഹചര്യമൊക്കെ അനുസരിച്ച് എത്രത്തോളം ചിലവ് കുറച്ചു കൊണ്ട് എത്രത്തോളം നല്ല രീതിയിൽ പോവാൻ പറ്റും അതിന് പറ്റുന്ന ട്രെയിൻറ്റെ ടിക്കറ്റ് ട്രെയിന് എത്രനാൾ മുമ്പേ ബുക്ക് ചെയ്താൽ ട്രയിൻ ടിക്കറ്റ് നമുക്ക് അവൈലബിളായിട്ട് കിട്ടും റെയ്റ്റൊക്ക കുറവുള്ളതൊക്കെയൊന്ന് അറിഞ്ഞ് കേട്ട് ഒന്ന് സംസാരിച്ചിട്ട് ഒന്ന് വേ തിന്നൊന്ന് അറിയിക്കുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു